നമ്മുടെ ജീവിതത്തിൽ എഴുത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കുട്ടിക്കാലം മുതലേ എഴുത്തിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാ ദിവസമെന്ന് പറയാൻ പറ്റില്ല കിട്ടുന്ന അവസരങ്ങളിൽ ഞാൻ എഴുതും എഴുത്തിലൂടെ എൻ്റെ കൈ അക്ഷരം നന്നാക്കാനെക്കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉള്ള മനസ്സിന് വിഷമം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ നമുക്ക് എഴുതാം ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളിലൂടെ കടന്ന് പോകുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖവും സന്തോഷം എല്ലാം സമ്മിശ്രമാണ് അപ്പോൾ അത് എഴുത്തിലും അത് ബാധിക്കും എഴുത്തെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും കിട്ടുന്ന ഒരു നൈപുണ്യമല്ല എന്നാൽ എനിക്ക് എഴുതാൻ ദൈവം ആ സഹായിച്ചിട്ടുണ്ട് എഴുതാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് എഴുതുന്നതിനൊരു സമയമോ കാലമോ എന്നൊന്നുമില്ല എഴുത്ത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് ജീവിതത്തിൽ സാധാരണ എഴുതുന്നത് മനസ്സിന് വിഷമം എടുക്കുന്ന സമയത്ത് പരമാവധി എഴുതാറില്ല സന്തോഷാവസരങ്ങളിൽ എഴുതും എന്നാൽ ദുഃഖിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എഴുത്തിനെ അത് ബാധിക്കുന്നില്ല കിട്ടുന്ന അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് സമയം ഉള്ള സമയത്ത് എഴുതും മിക്കവാറും അവധി ദിവസങ്ങളിൽ ആയിരിക്കും എഴുതാറുള്ളത് അല്ലെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം സമയമില്ല രാത്രി സമയങ്ങളിൽ എഴുതും നമ്മുടെ യാത്ര യാത്രാവിവരണങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് മുഖാന്തരം യാത്രാ വിവരണങ്ങൾ എഴുതുന്നുണ്ട് ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകൾ ആ സ്ഥലങ്ങളിലെ ആൾക്കാരുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ ആഹാരത്തിൻ്റെ പ്രത്യേകതകൾ ഇവയെല്ലാം നമുക്ക് യാത്രാവിവരണമായിട്ട് എഴുതാം നമ്മൾ യാത്രയിൽ പോകുമ്പോൾ പല പല ആൾക്കാരെ നമ്മൾ കണ്ട് മുട്ടുന്നുണ്ട് പല പല സാഹചര്യങ്ങളിലൂടെ കടന്ന് പോകുന്നവരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പലപല ജോലിയിലൂടെ കടന്ന് പോകുന്നവരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ യാത്രാ വിവരണമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും യാത്ര ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ മനുഷ്യരിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് യാത്ര വിവരണമെന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഇഷ്ടം ഈ അടുത്തകാലത്ത് ഞാൻ യാത്രപോയി അപ്പോൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനെക്കൊണ്ട് കഴിയും അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യാത്രകളൊത്തിരി അവനെ മാറ്റി മറിക്കുന്നുണ്ട് അവൻ്റെ അറിവിനെ യാത്രകൾ ഒത്തിരി മാറ്റിമറിക്കുന്നുണ്ട് നമുക്ക് ഒത്തിരി എഴുത്തുകാരെ നമുക്ക് അറിയാം നമ്മുടെ സംസ്ഥാത്ത് ആയിക്കോട്ടെ അയൽ സംസ്ഥാനത്തെ ആയിക്കോട്ടെ ഒത്തിരി എഴുത്തുകാർ അവരുടെ ജീവചരിത്രങ്ങൾ എഴുതുന്നുണ്ട് ആ എഴുത്ത് നമ്മുടെ മനസ്സിനെ ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട് അത്പോലെ വിഷമവും ഓരോരുത്തരുടെ ജീവിത യാഥാർഥ്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ വിഷമമൊക്കെ നമുക്ക് വരും എന്നാൽപ്പോലും അവരെ പറ്റി കൂടുതൽ അറിയാനേകൊണ്ട് നമുക്ക് ഈ എഴുത്തുകളിലൂടെയാണ് സാധിക്കുന്നത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ പല പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം നമുക്ക് ഒരു ബുക്കായിട്ട് വേണമെങ്കിൽ എഴുതിയോ എഴുതാം അപ്പോൾ എഴുത്തെന്ന് പറയുന്നത് എല്ലാ മനുഷ്യനിലും ഉള്ള ഒരു നൈപുണ്യമാണ് അത് ചിലവർ നല്ല രീതിയിലെടുക്കും എന്നാൽ ചിലരത് കാര്യമായി എടുക്കുന്നില്ല എഴുത്തെന്നുള്ളത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ എഴുത്തിന് കൂടുതൽ പ്രാധാന്യമൊന്നും നൽകുന്നില്ല എന്നാൽ പണ്ടുള്ള കാലത്തെ ധാരാളം കവികളാന്നേലും കവിയത്രികളാന്നേലും അവരുടെ കുട്ടിക്കാലം മുതലേ എഴുതുമായിരുന്നു അപ്പോൾ നമുക്ക് സാധാരണയേ അത് സാധാരണ കുട്ടികളെന്നില്ല സാധാരണ ആൾക്കാരെന്നില്ല ഏ ആർക്കും എഴുതാം എഴുത്ത് അവൻ്റെ ജീവിതത്തിലൊരു ഘടകമായിട്ട് മാറേണ്ടത് ആവശ്യമാണ് ചിലർ ഹോബിയായിട്ട് കൊണ്ടു പോകുന്നവർ ഉണ്ട് എന്നാൽ ചിലർ അതൊരു കരിയറായിട്ട് എഴുത്തിനെ കൊണ്ടു പോകുന്നവരുമുണ്ട് അത് സാ എഴുത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്